ഹലോ ആ പറയൂ

കോഴിക്കോട് കുന്നമംഗലം

ആ പറഞ്ഞോളൂ ആ പറഞ്ഞോളൂ ഓ ഞാൻ വരാൻ ഉള്ള രണ്ട് പരിപാടിയിൽ ഉണ്ട്

പിന്നെ നമ്മൾ ചുറ്റിയിട്ട് നമ്മൾ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടി അങ്ങനെ തുടങ്ങീന്

ആ ഞങ്ങൾ ഒരു പത്ത് ഒരു വൺ ഇയറ് ആ ഒരു പത്ത് മാസം ആയിക്കാണും ഇങ്ങനെ ചെയ്യുന്ന് ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്

അല്ല അവിടെ ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഇല്ല അങ്ങനെ ഒന്നും കൂടീട്ട് ഇല്ല അത് ഇ എസ് ഐ സിസ്റ്റം അങ്ങനെ ചെയ്ത് ഉണ്ടായിരുന്നു

ആ ആ ആ ഇപ്പോൾ ഓൾറെഡി നമുക്ക് ഉണ്ട് അങ്ങനെ എന്നാ പോയിട്ട് ഇത് ഇപ്പോൾ ഓൾറെഡി ഒരു ഡീൽ ഉണ്ടോ ഉണ്ടായത് കൊണ്ട് ആണ് ഒരു ഏഴായിരം ഏഴായിരത്തഞ്ഞൂറ് വെച്ചിട്ട് ഒക്കെ അടുത്ത് കാണും അതുകൊണ്ട് ആണ് അല്ലെങ്കിൽ രണ്ടിന് വില കൂടിയ ഇത് രണ്ട് സ്കീമ് കൊണ്ട് ഒരിക്കലും രണ്ടും കൂടി മുന്നോട്ട് കൊണ്ടോവാൻ കഴിയില്ല ഉണ്ട് ഇത് കഴിയാണ്ട് നമുക്ക് ഒന്നും നോക്കാനും കഴിയില്ല ഇല്ല വേറെ ആരും അങ്ങനെ ഒന്നും ചേർന്നിട്ട് ഒന്നും ഇല്ല ഓക്കേ ഓക്കേ താങ്ക് യൂ